ജീവിതത്തില് ഒരുപാട് പാഠങ്ങള് പഠിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കില് നമ്മള് മറ്റുള്ളവരേ സ്നേഹിക്കുക അവരെ ബഹുമാനിക്കുക എന്നുള്ള ഒരു പാഠം നമ്മള് ചെറുപ്പം മുതലേ പഠിപ്പിച്ചിരുന്നതാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അവർക്ക് സന്തോഷം മാത്രം കൊടുക്കുക പിന്നേ അങ്ങനേ ഇപ്പം അമ്മയ്ക്കാണെങ്കിലും നമ്മള് നമ്മള് അനിയത്തി ഞാനും എൻറ്റെ അനിയത്തിയാണുള്ളത് അപ്പോൾ ഞങ്ങള് എപ്പോഴും അടി കൂടുകയും അപ്പോൾ നമുക്ക് എപ്പോഴും അടി കൂടുന്ന സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര സങ് സങ്കടായിരിക്കും അപ്പോൾ അമ്മേനെ വിഷമിപ്പിക്കാതെ നോക്കുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പിന്നേ കിട്ടിയ പാഠങ്ങളാണ് അമ്മ കരഞ്ഞിട്ട് വരേ ഉണ്ട് ഒരു ദിവസം നമ്മള് അടി കൂടുന്ന കൺ കണ്ടിട്ട് അപ്പോൾ അപ്പം അമ്മയ്ക്ക് സങ്കടം വന്നുകൊണ്ട് നമ്മള് നമ്മള് അടി കൂടുന്നത് കൊണ്ടാണ് അമ്മയ്ക്ക് അങ്ങനൊരു വിഷമം വന്നത് അപ്പോൾ ഒരു പാഠമാണ് നമ്മ അപ്പോൾ നമ്മള് ഇപ്പോൾ അങ്ങനെ നല്ല വഴക്കൊന്നും ഇടാണ്ട് നമ്മള് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ സന്തോഷമാണ് അപ്പോൾ അതൊരു പാഠം തന്നേയാണ് അവരെ വിഷമിപ്പിക്കാതെ നമ്മള് നമ്മുടെ ജീവിതത്തെ ഇതാക്കുക